ഹലോ പച്ചക്കറി കടയല്ലേ ഇന്നെ എന്തൊക്കെയാണ് ഫ്രഷായിട്ടുള്ള പച്ചക്കറി ഇന്ന് എന്നാ ഒക്കെയുള്ളത് ആഹ് ഓക്കെ ഇതിന് വിലയൊക്കെ അപ്പോൾ എങ്ങനെയേട്ടാ വരുന്നത്

കുറേയുണ്ടേ ആ അപ്പോഴത്തേക്ക് ഹോം ഡെലിവറിയുണ്ടോ ആണല്ലേ നമുക്കതിന് സ്പെഷ്യലായിട്ട് ചാർജ് വല്ലതും ആണല്ലേ ആ ആ അപ്പോഴത്തേക്ക് ഇതു നമുക്ക് ആ അപ്പോഴത്തേക്കും നമുക്ക് ഇത് സ്ഥലം കറക്റ്റ് എവിടെയായിരുന്നു ചേട്ടാ വരുന്നത് ആണല്ലേ ഓക്കെ ഓക്കെ ഓ അപ്പോൾ നമുക്കൊരു കല്യാണത്തിനു വേണ്ടി വലിയൊരു ഓഡർ തരാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് അവർക്ക് ഫ്രഷായിട്ടുള്ള സാധനം വേണം തന്നെ അപ്പം ഇവർ പറഞ്ഞായിരുന്നു അതു കൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് ആണല്ലേ ആ ഓക്കെ ഓക്കെ ആ ആണല്ലേ അപ്പോൾ നമുക്ക് തലേദിവസം തന്നെ സാധനങ്ങൾ എത്തിക്കത്തില്ലേ നമുക്ക് സ്ഥലത്തോട്ട് അല്ല പിന്നെ നിങ്ങൾ സാധനം എവിടെ നിന്നാണ് എടുക്കുന്നു നമ്മൾ സ്വന്തമായിട്ട് നിങ്ങൾ ആണല്ലേ ആ ആ അപ്പം ഗൂഗിൾ പേ ഉള്ളതല്ലേ നിങ്ങൾക്ക് ക്യാഷ് ഇപ്പോൾ ഗൂഗിൾ പേ ഉണ്ടല്ലേ ആ അപ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ സമയം പതിനൊന്നു മണിയായി നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ കുറച്ചു പേര് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും ഞാൻ പറഞ്ഞു വിട്ടേക്കാം അവർക്ക് സാധനങ്ങൾ ലിസ്റ്റായിട്ട് അവരെ പറഞ്ഞു വിട്ടേക്കാം അപ്പം

ഓക്കെ ഓക്കെ എന്നാൽ ശരി ചേട്ടാ ഓക്കെ ഓക്കെ